നമസ്കാരം ആ എനിക്ക് മ് ആ എനിക്ക് മൂന്നാർ പോവാൻ ഉള്ളതാണേ മൂന്നാർ ഇടുക്കി

അപ്പോൾ ഇവിടെ എങ്ങനെ ആണ് കാറും റേറ്റും കാര്യങ്ങൾ ഒക്കെ പാക്കേജ് ഇല്ല ഫാമിലിയും ഫാമിലി ആയിട്ടാണ് പോണത് പത്ത് ആൾ ഉണ്ടാവും ഒരു പത്ത് ആൾ

അല്ല അല്ല രണ്ട് മൂന്ന് ദിവസത്ത സ്റ്റേ അടിക്കാൻ ആണ്

അല്ല ഞാൻ ഇത്ര ദിവസം ഗോവയിൽ ആയിരുന്നു ഞാൻ ഇന്നലെ വന്നതാണ് അപ്പം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ്

ആ എൻ്റെ അച്ഛൻ അമ്മ വൈഫ് രണ്ട് മക്കൾ പിന്നെ ഒരളിയൻ ഉണ്ടാവും ആ ആ മതി മതി എയ് വേണ്ട വേണ്ട നാല് നാല് റൂം മതി ഓക്കെ അവിടെ ഫുഡ് ആ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്

ആ നിങ്ങളുടെ കൂടെ ഒരാൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും

ആ അപ്പം ഇത് ഈ ഈ പാക്കേജ് തന്നെ അല്ല ഈ പാക്കേജ് തന്നെ ഞമ്മള ഭക്ഷണവും കാര്യങ്ങളും നിങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടാവില്ലേ ആ അത് അത് എന്തൊക്കെ ഡിഷ് ആണ് വരുക ആ എന്നാൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി

അത് ഇപ്പം ഫസ്റ്റ് അഡ്വാൻസ് ആയിട്ട് പത്തായിരം റുപ്യ തരണം ഓ ഓക്കെ ഓക്കെ ഓ ആ അല്ല എൻ എനിക്ക് ഇത് ആ പരിപാടി കണ്ട് അത് പരിചയപ്പെടുത്തി നിങ്ങൾ നല്ല ബെസ്റ്റ് ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മ് പറഞ്ഞു അപ്പം അതാണ് ഞാൻ ഡയറെറ്റ് ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നും അന്വേഷിച്ചില്ല എനിക്ക് ഈ ഒരു മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ആണ് പോവാൻ ഇഷ്ടപ്പെടുന്നത്

ഓക്കെ സാർ ഓ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ സാർ ആ ശരി